ഞങ്ങളുടെ അടുത്തു വര് വലിയൊരു പാറയുണ്ട് ഞങ്ങൾ ചെറുതാകുമ്പോൾത്തന്നെ അതിന്റെ മുകളിൽ കയറും മുകളിൽ കയറിയിട്ട് വൈകുന്നേരം കാറ്റ് കൊള്ളാനാണ് പോകണത് പക്ഷേ സുര്യാസ്തമയം കാ ശരിക്കിനി കാണാം അതിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ അപ്പം അതു നല്ല രസമാണ് കാണാൻ അതെങ്ങനെ താഴ്ന്നിങ്ങനെ പോകും പോകണ ഇടത്തോളം ചുകന്നു ചുകന്നു വലിയ ഒരു അമ്പിളിമാമന്റെ മാരിയായിട്ടിങ്ങനെ വെള്ളത്തിലേക്കിങ്ങനെ ഇറങ്ങി പോകണ മാതിരി ഇങ്ങനെ തോന്നും കണ്ടാൽ അത് ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോരൽ ഇപ്പതിന്റെ മുകളിൽ വലിയൊരമ്പലം വന്നിട്ടുണ്ട് ഇപ്പോൾ കുറേ ആള്ക്കാർ വരും വന്നു പാറ കാണാനായിട്ടും വരും അതേപോലെ തൊഴാനായിട്ടും വരും പിന്നെ സൂര്യാസ്തമയം കാണാന് വരും അതേപോലെ എന്താ കാറ്റു കൊള്ളാന് വരും അങ്ങനെ പല ദൂര ദൂരെദൂരെയുള്ള ആള്ക്കാരൊക്കെ വരുന്നുണ്ടിപ്പോൾ ഇപ്പോൾ നല്ല സുഖമാണവിടെ വൈകുന്നേരത്തു പോയിരിക്കാന് നല്ല കാറ്റ് ഉണ്ടാകും നല്ല നല്ലൊരു സുഖമാണ് നല്ലൊരന്തരീക്ഷമാണ് അവിടെ ഇപ്പോൾ ദൂരത്തു നിന്നൊക്കെ വരുണവരൊക്കെ പറയും ഇവിടുന്നു പോകാന് തോന്നണില്ല കാറ്റുണ്ട് അതേമാതിരി എല്ലതുമുണ്ട് വെള്ളം എല്ലാ സൗകര്യങ്ങളും ഉണ്ടവിടപ്പോൾ ഇപ്പോൾ തൊഴാനായിട്ടാള്ക്കാർ വരും രാവിലെ വരും അതേമാതിരി അധിക ആള്ക്കാരും രാ രാവിലെയാണിപ്പോൾ വരുന്നത് എന്തു കൊണ്ടു തൊഴുതു പോകാന് വേണ്ടിയിട്ട് വൈകുന്നേരം അടുത്തുള്ളവരൊക്കെ വെള് വൈകുന്നേരം പോകും കാറ്റു കൊള്ളാനും അതേപോലെ സൂര്യാസ്തമയം കാണാനും പോകണുണ്ട് ഞങ്ങൾ അതേപോലെ ദിവസം എന്നറിയും പോലെ ഞങ്ങളും പോയിരുന്നു കാണാൻ ഇപ്പോൾ ഞങ്ങൾ പോരില്ല എന്തു കൊണ്ടെന്നു വെച്ചാൽ ദൂരത്തു നിന്നും പലപല ആള്ക്കാരാണ് വരണെ എന്താ സംഭവിക്കുന്നതു പറയാന് പറ്റില്ലല്ലൊ അപ്പോൾ വീട്ടിലുള്ളോർ പറയും വൈകുന്നേരം പോകണ്ടാ രാവിലെ പോയി തൊഴുതു പോന്നോളീയെന്നു പറയും അപ്പം ഞങ്ങൾ രാവിലെ പോകും തൊഴുതു പോരും വൈകുന്നേരം എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കില് മാത്രം പോകുകയുള്ളു അപ്പം ഞങ്ങൾ സൂര്യാസ്തമയവും എല്ലതും കണ്ടിട്ടാണ് പോരുക ഒരുവിധം രാജ്യങ്ങളൊക്കെ അതിന്റെ മുകളിൽ കയറിനിന്നാൽ കാണാം